ഈ പ്രദേശത്ത് നമുക്ക് വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് പഞ്ചായത്തുകളുടെ കീഴിൽ വെറ്റനറി ഡിസ്പെൻസറിയും അതേപോലെ തന്നെ മൊബൈൽ ഡിസ്പെൻസറിയൊക്കെ ഉണ്ട് ഡോക്ടർമാർ വീടുകളിൽ വന്നു മൃഗങ്ങളെ പരിശോധിക്കാറുണ്ട് അവരുടെ ആരോഗ്യത്തിനും രോഗ പ്രതിരോധ ശേഷിക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാറുണ്ട് അതേ പോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളും മറ്റൊക്കെ നിർദ്ദേശിക്കാറുണ്ട് പക്ഷെ ഭക്ഷണ കാര്യങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രയാസം എന്നു പറയുന്നതെന്ന് കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കിട്ടുന്നത് അപ്പം അത് ഒരു പരിധി വരെ ഒഴിവാക്കുന്നതിന് കഴിയുന്നില്ല എന്ന വസ്തുതയുണ്ട് നമ്മളിപ്പം എല്ലാ മാസവും മൃഗങ്ങളെ പരിശോധിക്കുന്നുണ്ട് ഏകദേശം അതിനാവശ്യമായിരുന്ന ചിലവുകൾ ഡോക്ടർമാരുടെ ഫീസ് വാഹനം വാഹനത്തിൻ്റെ ചിലവ് അതേ പോലെ മരുന്ന് അതിനൊക്കെ നല്ല പൈസ ചിലവാകാറുണ്ട്